തൊണ്ടവേദനയെന്ന് പറയണെങ്കിൽ അത് നമുക്ക് സഹിക്കുന്നതിനുമപ്പുറം വേദനകളുണ്ട് തൊണ്ടവേദനയെന്ന് പറയണമെങ്കിൽ നമ്മൾ ചിലപ്പോഴെങ്കിൽ ചില ചില ആളുകൾക്കെന്ത് ഈ തൊണ്ടവേദനയെന്ന് പറയണത് ചിലപ്പോഴെങ്കിൽ ഒരു തുടക്കം മാത്രമായിരിക്കും അതായത് ചിലപ്പോഴെങ്കിൽ പനി ഉണ്ടാവുമ്പോൾത്തന്നെ നമ്മളെന്ത് സാധാരണ പറയലുണ്ട് ഈ പനി ഉണ്ടായാൽ തൊണ്ടവേദന ഉണ്ടാവും അത് ഉണ്ടാവേണ്ട ഇരിതാണ് നമുക്കൊക്കെ ഉണ്ടാവുന്നൊരു പൊതുവേ ഉള്ളൊരിതാണ് തൊണ്ടവേദന പറയുകയാണെങ്കിൽ പക്ഷെ തൊണ്ടവേദനതന്നെ വളരെ അങ്ങേ അറ്റത്തിൽ എന്ത് വേദനയെടുത്തിട്ട് സഹിക്കാൻ പറ്റാത്തൊരിതിലുണ്ട് അല്ലെ ഇപ്പോൾ തുടക്കത്തിൽ അതായത് ചിലപ്പോഴെങ്കിൽ അങ്ങനെ ഓവറൊന്നും പറ്റില്ല എന്തായാലും കുഴപ്പമില്ല ആ ഒരു ഇതിലുള്ളതുകൊണ്ട് ഇനി ചിലതെന്തുണ്ട് നല്ല വേദനിച്ചിട്ട് ഭക്ഷണംപോലും ഇറക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള തൊണ്ടവേദന അങ്ങന പലരൂപത്തിൽ അതായത് ഓരോ അതിൻ്റെ സ്റ്റേജുകൾ ഇങ്ങനെ മാറേണ്ടതുണ്ട് തൊണ്ടവേദന നല്ലതായിട്ടുള്ള അത് മാറുന്നതിനനുസരിച്ച് എന്താകുന്നുണ്ട് അതിൻ്റെ ശക്തി മൂർജ്ജിച്ചിട്ടും എന്താകുന്നുണ്ട് അത് അതിന് പല പല പേരുകളാണ് ഓരോത്തരും വരുന്നത് അത് നമ്മളെന്നെ സാധാരണ കേൾക്കുന്നതാണ് ടൈഫോയ്ഡ് പിന്നെ അതേമാതിരിത്തന്നെ അത് അങ്ങനെ കൂടുന്നതനുസരിച്ച് അതിൻ്റെ പേരിങ്ങനെ മാറും അതായത് അതിങ്ങനെ കൂടണതിനനുസരിച്ച് വളരെ അപകടമാണെന്ന് അർഥം അപ്പോൾ ഞങ്ങൾ നാട്ടിൻപുറങ്ങളിലൊക്കെ പൊതുവേ ഈ തൊണ്ടവേദന വന്നിട്ടുണ്ടെങ്കിൽ പൊതുവേ എല്ലാവരും ഉപയോഗിക്കണതെന്താണ് നല്ല ചൂടുവെള്ളം കുടിക്കണം ചൂടുവെള്ളം തന്നെയങ്ങനെ ഒരു തെളപ്പിച്ചാറിയ അതായത് നല്ല ചൂടുള്ള കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് തൊണ്ട വേദനയ്ക്ക് ഒരിക്കലും ഇതാവില്ല അതിനൊരു മീഡിയം ലെവൽ അതായത് ഇനി ചൂടുണ്ടെങ്കിൽത്തന്നെ അത് കുറച്ചൊക്കെ ഒന്നാറ്റിയിട്ട് അങ്ങനെ ഒരു മീഡിയം ലെവലായിട്ടുള്ള ഒരു ചൂട് അതായതൊരു ഒരു പാകത്തിനുള്ള ചൂട് അതായത് നല്ല ഓവർ ചൂടല്ല അതായത് പൊള്ളണ ചൂടല്ല പിന്നെ നല്ല ചൂട് ഒരു മീഡിയം ലെവലെന്ത് നല്ല ചൂടായിട്ട് അതായത് ഒരു മീഡിയം ലെവല് ഫ്ലെയിം ചെയ്തിട്ട് അങ്ങനെയുള്ള ഒരു ചൂടുവെള്ളമാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പൊതുവേ കുടിക്കാറുള്ളത് അതായത് തൊണ്ടവേദന വന്നാൽപ്പിന്നെ അദ്ദേഹം കുടിക്കണ വെള്ളം എപ്പോഴും എന്തായിരിക്കും ചൂടുവെള്ളമായിരിക്കും അതുപോലെത്തന്നെ നല്ല ഇഞ്ചി പിന്നെ അതുപോലെത്തന്നെ ഇഞ്ചി പിന്നെ നല്ല ഇഞ്ചി പിന്നെ അതുപോലെത്തന്നെ നല്ല കുരുമുളക് ഇട്ട വെള്ളം ഞങ്ങളിവിടെ അതെല്ലാം കുടിക്കാറുണ്ട് പിന്നെ ഇഞ്ചി മറ്റേ മഞ്ഞൾ വെള്ളം മഞ്ഞൾ വെള്ളമല്ല നമ്മൾ എൻ്റെ വീട്ടിലൊക്കെ പൊതുവേ അങ്ങനെ ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ പൊതുവേെ കുടിക്കണ വെള്ളമാണ് മഞ്ഞൾ വെള്ളം മഞ്ഞൾ വെള്ളം എന്തിനും അതായത് തൊണ്ടയോട് ബന്ധപ്പെട്ട പനിക്കുവരെ ഈ മഞ്ഞൾ വെള്ളം കുടിച്ചാൽ എന്തുചെയ്യും വളരെ എന്തുചെയ്യും നല്ല ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്നുള്ളതൊക്കെ പൊതുവെ എല്ലാവരും കേൾക്കണ കാര്യമാണ് അത് ഈ മഞ്ഞൾ വെള്ളം എന്നു കുടിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തു നല്ല ഉള്ളിലേക്കെന്ത് നല്ലൊരു ഇതുതന്നെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ മഞ്ഞൾ വെള്ളത്തിലൂടെ അത് ഈ മഞ്ഞൾ എന്നു പറഞ്ഞാൽ എന്താണ് നല്ലൊരു സാധനം അതായത് അങ്ങനെ എല്ലാ ഇടത്തും എന്ത് കിട്ടണ സാധനമാണ് ഈ മഞ്ഞൾ എന്നു പറയണത് പക്ഷെ അത് എല്ലാവരും എന്തില്ല പൊതുവേ കറി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാറുള്ളൂ പക്ഷെ ഞങ്ങളുടെ ഇവിടെയെന്ന് പറയണമെങ്കിൽ അങ്ങനത്തെ അതിന് ഉപയോഗിക്കും അതിന് പുറമെ എന്ത് ഇങ്ങനത്തെ ഈ വെള്ളങ്ങൾക്കുവേണ്ടി നല്ല ഉപയോഗിക്കാറുണ്ട് അതായത് പൊതുവെ നമ്മളെ ഈ കൊറോണയിൻ്റെ ടൈമിലൊക്കെ ഞങ്ങൾ പൊതുവേ ഈ വെള്ളം മാത്രം കുടിച്ചിന് അതായത് ഇവിടെയുള്ള പ്രദേശങ്ങളിലെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കൊറോണ വന്നപ്പോൾ അവരൊക്കെ കുടിച്ചിരുന്നതും എന്താണ് ഈ മഞ്ഞൾ വെള്ളമായിരുന്നു പിന്നെ അതുപോലെത്തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇഞ്ചിവെള്ളം പിന്നെ അതേപോലെത്തന്നെ ഇഞ്ചിവെള്ളമൊക്കെ ഞങ്ങളെ അവിടെ നല്ല കുടിക്കണ സാധനമാണ് പിന്നെ അതേപോലത്തെ നല്ല കഫ് സിറപ്പുണ്ടാവും കൃഷ്ണ കൃഷ്ണതുളസി കഫ് സിറപ്പ് അത് കടയിൽ നിന്നായിരിക്കും പുറത്തുള്ളവർ മേടിക്കണത് പക്ഷെ ഞങ്ങളവിടെയൊക്കെ അത് സ്വന്തമായിട്ട് അതായത് അതിനായുള്ളൊരു ഇലയുണ്ട് അതിൽ നിന്ന് എന്ത് ഉണ്ടാക്കിയിട്ടുതന്നെ അങ്ങനെ കുടിക്കാറുണ്ട് പിന്നെയിത് അതേമാരിത്തന്നെ എന്ത് ഒരു മോരകം എന്നുപറഞ്ഞ സാധനമുണ്ട് ഒരു ഇലയാണ് അതിൻ്റെ ഇലയൊക്കെ എടുത്ത് തിന്നിട്ടുണ്ടെങ്കിൽ വളരെ എന്തുനല്ല ശമനം കിട്ടുമെന്നൊക്കെ പൊതുവേ ഞങ്ങളുടെ അവിടെയുള്ള ആളുകളൊക്കെയെന്ന് പറയാറുണ്ട് പ്രത്യേകിച്ച് ഈ വയസ്സായവരൊക്കെ നല്ലത് പറയുന്ന ഒരിലയാണ് ഈ മോരകത്തിൻ്റെ ഇല